ഞങ്ങളുടെ നാട്ടിൽ കൂടുതലായി കണ്ടുവരുന്നത് തിരുവാതിര കൈകൊട്ടി കളി ക്ലാസിക്കൽ ഡാൻസ് എന്നിവയാണ് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നതിനു വേണ്ടി ധാരാളം ഡാൻസ് സ്കൂളുകളുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഞങ്ങളുടേത് കൂടുതലും ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് കൂടുതലായി തിരുവാതിര ക്ലാസിക്കൽ ഡാൻസ് എന്നിവയാണ് നമ്മുടെ ഇവിടെ കണ്ടുവരുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൂടുതലായി കണ്ടുവരുന്ന മൂന്നു കലാരൂപങ്ങൾ തിരുവാതിര കൈകൊട്ടിക്കളി ക്ലാസിക്കൽ ഡാൻസാണ് ക്ലാസിക്കൽ ഡാൻസെന്നു പറയുമ്പോൾ മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി എന്നിങ്ങനെ പലതരത്തിലുള്ള ക്ലാസിക്കൽ ഡാൻസുകളും ഉണ്ട് പിന്നെ നമ്മടെ ഇവിടെ വരുന്ന പെയിൻറ്റിങ് എന്നു പറയുമ്പം മ്യൂറൽ പെയിൻറിങ്ങാണ് കൂടുതലായിട്ടു വരുന്നത് മ്യൂറൽ പെയിൻറ്റിങ്ങെന്നു പറയുമ്പോൾ നമ്മുടിവിടെ ക്ഷേത്രത്തിലൊക്കെ വരയ്ക്കുന്ന മ്യൂറൽ പെയിൻറ്റ് വരയ്ക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടിവിടെ ഉണ്ട് കുട്ടികളുണ്ട് അവർ നമ്മുടെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പുരാതനമായ കഥകളിലൊക്കെ വരുന്നതുപോലെ ഇപ്പം കൃഷ്ണൻ്റെ പത്തവതാരങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതുപോലെ അങ്ങനെ കുറെ മ്യൂറൽ പെയിൻറ്റിങ് നമ്മളിവിടെ നടത്തുന്നുണ്ട് വരക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ വരച്ചു പോകുന്നുണ്ട് അതിവിടെ കണ്ടു വരുന്നുണ്ട് പിന്നേ ശില്പം ഉണ്ടാക്കുക എന്നു പറഞ്ഞാൽ നമ്മുടെ കല്ലിൽ കൊത്തിയിട്ട് ഉണ്ടാകുന്ന ശില്പങ്ങൾ ധാരാളം പണിതു വരുന്ന ഒരു സാഹചര്യവും നമുക്കിവിടെ കണ്ടുവരുന്നുണ്ട്